നമ്മുടെ സർക്കാരിനോടും ഗ്രാമ പഞ്ചായത്തിനോടുമൊക്കെ നമുക്ക് പറയാനുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടൂറിസ്റ്റിന് സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലേസ് ആണ് നമ്മുടെ ഗവി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണത് അപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ആൾക്കാർക്ക് ഗവിയിലേക്ക് പോവാനായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിന് നമ്മൾ പോവുന്ന ആൾക്കാർക്ക് വളരെ ദുരിതം പിടിച്ച ഒരു മേഖലയിലൂടെ കടന്നുപോവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് കാരണം അവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ നമ്മളെ മാലിന്യങ്ങളൊക്കെ ഒരുപാട് നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പം ഈ നമ്മുടെ ഈ മാലിന്യങ്ങൾ എല്ലാം അവിടെ കൂട്ടി ഇട്ടിരിക്കുന്നതും റോഡ് സൈഡിലൊക്കെ മാലിന്യം ഉള്ളതൊക്കെയും നമ്മൾ ടൂറിസ്റ്റുകൾക്ക് പോവാനായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബുദ്ധിമുട്ടുള്ളതാണ് അന്നേരം ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നമ്മുടെ റോഡ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ കുണ്ടുകളും കുഴികളും ഒക്കെ നിറഞ്ഞ ഒരു സാ സാഹചര്യത്തിൽ അതൊക്കെ ഒന്നു നല്ല രീതിയിൾ അങ്ങോട്ടോ റോഡ് ഒക്കെ പുരോഗമിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാരെ അവിടേക്ക് ആകർഷിക്കാനും കൂടുതലും നമുക്ക് ടൂറിസ്റ്റിൽ ആൾക്കാർക്ക് വന്ന് അവിടെ കാണുവാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവാനും ഒക്കെ സാധിക്കുന്നതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റീ ശോചനീയമായിട്ടുള്ള ഈ റോഡുകളുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം അതുപോലെ തന്നെ ബസ്സുകളൊക്കെ കൂടുലും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യമായിട്ട് കണ്ട് എല്ലാം മനസ്സിലാക്കി തിരിച്ച് പോരുവാൻ സാധിക്കുന്നതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോവാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ ബസ്സുകൾ നമ്മുടെ അവിടേയ്ക്ക് കൊണ്ടു പോവുവാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ പോയി എഞ്ചോയ് ചെയ്ത് തിരിച്ചുവരാനായിട്ട് സാധിക്കുന്നതാണ് കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ബസ്സുകൾ ഒക്കെ പിടിച്ച് നമ്മളൊരു സാമ്പത്തികമായിട്ടുള്ള താ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്കും പോവാൻ പറ്റുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പം കൂടുതൽ ബസ്സുകൾ അങ്ങോട്ടേയ്ക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് പോവാൻ സാധിക്കുന്നതാണ് അത് നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും നല്ല രീതിയിൽ നല്ല രീതിയിൽ പരിഹരിച്ച് പോവുവാണെങ്കിൽ നമുക്ക് അത് പോകാനായിട്ടും ആൾക്കാർക്ക് അവിടെ ചെന്നാൽ എഞ്ചോയ് ചെയ്യുവാനും കുട്ടികളെയും കൊണ്ടൊക്കെ ആണെങ്കിലും ടൂറിസ്റ്റുകൾ നമ്മൾ വിദേശത്തൊക്കെ ആയിരിക്കുന്നവരൊക്കെ വരുമ്പോഴും നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോഴും നമുക്ക് അവിടെ പോവാനും എഞ്ചോയ് ചെയ്യുവാനുമൊക്കെ സാധിക്കുന്നതാണ് പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പോവുന്ന ടൂറിസ്റ്റുകൾ ആണെങ്കിലും നമ്മൾ ആണെങ്കിലും പോവുന്ന സാ സാഹചര്യത്തിൽ നമ്മൾ ഈ എന്ത് വേസ്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക്ക് ആണെങ്കിലും ഒക്കെ ഒരു വലിച്ചെറിയുന്ന ഒരു ഇതുണ്ട് അതൊക്കെയും ഒഴിവാക്കി നമ്മൾ അവിടെ ഒക്കെ നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ നമ്മൾ മാലിന്യം ഒക്കെ സംസ്കരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് അവിടെ സജ്ജീകരിക്കുവാണെങ്കിൽ കൂടുതലും നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു സ്ഥലം ആവാൻ ഉണ്ട് സാധ്യത പിന്നെ അവരെ ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലും പഞ്ചായത്തുകളിൽ നിന്നൊക്കെ കൂടുതലും ഇപ്പം മാലിന്യ സംസ്കരണത്തിനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള വൃത്തിയാ വൃത്തിയായി കിട്ടുവാണെങ്കിൽക്കൂടെ ഒരു ആൾക്കാർക്ക് അവിടെ നമുക്ക് പോവാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ എറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് നമുക്ക് റോഡിൻ്റെ അവസ്ഥ നല്ല രീതിയിൽ റോഡ് നല്ലതാണെങ്കിൽ നമുക്ക് പോവുമ്പം തടസ്സം ഒന്നുമില്ലാതെ പോവും അവിടെ അപ്പം പോവാനായിട്ട് സാധിക്കുന്നതാണ്